ഇപ്പോൾ റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ തുടങ്ങിയ മാധ്യമങ്ങളിൽ അതായത് ഇഷ്ടം പോലെ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീവിയിൽ ആണെങ്കിലും അത് റേഡിയോയിൽ ആണെങ്കിലും കാണാൻ കഴിയുന്നതാണ് റേഡിയോയിൽ നമുക്ക് മാധ്യമത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ പറ്റുകയുള്ളു അറിയാൻ പറ്റുകയുള്ളു കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് എന്താ പറയുക അതില് നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ ഉള്ളൊരു ഇതൊള്ളു പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും മലയാള ഭാഷയെ അത് പരിപൂർണമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഇതാണ് റേഡിയോയും അതായത് ടെലിവിഷനും ടെലിവിഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലായിട്ടും മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത് പൂർണമായിട്ട് രീതിയിലുള്ള മലയാള ഭാഷയാണ് കാരണം അവർ ഓരോന്നും അതിൽ നിന്ന് ചൂഴ്ന്നെടുത്ത് ഓരോ കാര്യങ്ങളും പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മലയാളത്തിലാണ് അപ്പോൾ മലയാള ഭാഷയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകം ആണ് ടെലിവിഷനിൽ ഉള്ള മാധ്യമങ്ങൾ അതായത് പല രീതിയിൽ ഉള്ള മാധ്യമങ്ങൾ ഉണ്ട് ഇപ്പം അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ചാനൽ ജനം ടി വി ട്വൻറ്റി ഫോർ അങ്ങനത്തെ പല തരം ചാനലുകൾ ഉണ്ട് ഇവരൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വാർത്തകളാണ് അപ്പോൾ വാർത്തകളിൽ നിന്ന് തന്നെ കൂടുതലായിട്ടും മലയാള ഭാഷയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്